പ്രപഞ്ചത്തിലെ മറ്റു ഗ്രഹങ്ങളിൽ ജീവൻ ഉണ്ടെന്ന് തന്നെയാണ് ഞാനും കരുതുന്നത് കാരണം എന്തെന്ന് വെച്ചാൽ അമേരിക്കയിൽ ഇതിന് വേണ്ടിയിട്ട് ഒരു റിസർച്ച് സെൻറ്റർ ഉണ്ട് അവിടെ ആണെങ്കിൽ ഈ ഓരോ കാര്യങ്ങളെ കുറിച്ചും റിസർച്ച് ചെയ്ത് അവർ അതിൻ്റെ ഒരു ടെൻ പെർസെൻറ്റേജ് ഇൻഫോർമേഷൻ നമുക്ക് ബാക്കിയുള്ളവർ അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ സോഷ്യൽ മീഡിയസിലൊക്കെ ആണെങ്കിൽ ഒരു അപ്ലോഡ് ചെയ്യാറുണ്ട് നമ്മൾ ഇതിനെ കുറിച്ച് ആണെങ്കിൽ കൂടുതലായിട്ട് അങ്ങനെ നമ്മൾ സ്റ്റഡി അല്ലെങ്കിൽ അറിയുന്നതാണ് ഇൻ്റർനെറ്റിൽ ആണെങ്കിലും കുറച്ച് കാലങ്ങളായിട്ട് ഈ ഒരു രീതിയിൽ പറയുന്നുണ്ട് എലിയൻസ് ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ മറ്റ് അന്യഗ്രഹ ജീവികളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇൻ്റർനെറ്റിലും അവിടെ ഇവിടെയൊക്കെ ആണെങ്കിലും ഒക്കെ നമുക്ക് കുറെ ഇൻഫൊർമേഷൻസ് ഒക്കെ അതിലൂടെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു നമ്മൾ ആണെങ്കിൽ എന്താണ് ഈ ഒരു ഇൻഫൊർമേഷൻസ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഇപ്പം അങ്ങനെ ഒരു പ്രതിനത്തിൽ മറ്റു ഗ്രഹ ജീവികൾ അന്യഗ്രഹ ജീവികൾ ഉണ്ട് എന്ന് അല്ലെങ്കിൽ മറ്റു ജീവനുണ്ട് മറ്റു ഗ്രഹങ്ങളിൽ ജീവനുണ്ട് എന്ന് കരുതുന്നത് ഇങ്ങനെയുള്ള ഓരോ റിസർച്ച് സെൻറ്ററിൽ നിന്നാണെങ്കിൽ അവർ അവർ കോംപ്ലിറ്റിലി ഇൻഫർമേഷൻ നമുക്ക് തരില്ലെങ്കിലും കുറച്ചൊക്കെ ഇൻഫൊർമേഷൻസ് നമുക്ക് തരാറുണ്ട്